ഹല്ലോ ഗുഡ് മോർണിംഗ് സർ ആ ഞാനിപ്പോൾ ഈ കഴിഞ്ഞ വർഷം കഴിഞ്ഞതാണ് പത്താം ക്ലാസ് എനിക്ക് ഐ ടി ഫീൽഡിനോടാണ് താല്പര്യം അപ്പോൾ ഇതു കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടത് അതിനെ കുറിച്ചെനിക്ക് ഒരു ഐഡിയയില്ല അപ്പോൾ സാറൊന്നു പറഞ്ഞു തരണം അതിനാണ് ഞാനിപ്പോൾ വിളിച്ചത്

നയൻറ്റി ടു പേഴ്സൺൻറ്റേജുണ്ട് എനിക്ക് ഐ ടി ഫീൽഡിനോടാണ് കൂടുതൽ താല്പര്യം അപ്പോൾ എൻ്റെ ഉം പ്ലസ് വൺ കമ്പ്യൂട്ടർ സയൻസല്ലേ ആ എൻ്റെ ഫാമിലിയിലെല്ലാവരും കോമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ് അതുകൊണ്ട് ഇവർക്കാർക്കും ഇതിനെക്കുറിച്ച് കൂടുതൽ നോളഡ്ജ് ഇല്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ വിളിച്ചത് കമ്പ്യൂട്ടർ സയൻസ് എടുക്കണമെങ്കിൽ നമുക്കെത്ര മാർക്ക് വേണമെന്നുണ്ട് പത്താം ക്ലാസ്സില് ആ ഓക്കേ ഓക്കേ ഓക്കേ പിന്നെ കമ്പ്യൂട്ടർ സയൻസ് എങ്ങനെയാ പഠിക്കാൻ നല്ല പാടാണോ

ആ ഓക്കേ എനിക്ക് മാത്സ് പൊതുവേ ഇത്തിരി ടഫാണ് ആ ആ ഓക്കേ ഓക്കേ ആ ഓക്കേ

ഓക്കേ അത് പ്ലസ് ടു കഴിഞ്ഞിട്ടാണോ ചെയ്യേണ്ടത് അതോ ഇതിനോടൊപ്പം തന്നെ ചെയ്യാൻ പറ്റുമോ പ്ലസ് വൺ പ്ലസ് ടു അതിനോടൊപ്പം തന്നെ ചെയ്യാൻ പറ്റുമോ ആ ഓക്കേ ആ ആ ഓക്കേ ഓക്കേ ആ ഓക്കേ ഓക്കേ അങ്ങനെയാണല്ലേ ആ അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് എടുക്കുന്നതാണ് ബെസ്ഡ് ഓപ്ഷനെന്നാണ് പറയണത് ആ ഓക്കേ ഓക്കേ ഓക്കേ ഓക്കേ ഇതില് രണ്ട് ഓപ്ഷൻ ഉണ്ടെന്നു പറഞ്ഞില്ലേ അതിലേതാണ് കൂടുതൽ സ്കോപ്പ് ഉള്ളത് ഐ ടി ഫീൽഡാണോ അതോ ആ ഓക്കെ ഓക്കേ ഓക്കേ ഈ കീം എക്സാമിന്റെ രജിസ്ട്രേഷനൊക്കേ എങ്ങനെയാ വരുന്നത്

ആ ഓക്കേ ഓക്കേ ഓക്കേ ഓക്കേ അതിന്റെ കോച്ചിങ് സെൻറ്റർ എല്ലാം നമുക്ക് പാലക്കാട് അവൈലബിൾ ആയിരിക്കില്ലേ ഓക്കേ ഓക്കേ ഓക്കേ

ഓക്കേ ആ ഓക്കേ ഓക്കേ ആ ഓക്കേ സർ ഓക്കേ ഇനിയെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം ഓക്കേ താങ്ക് യൂ സർ